ഹലോ അതെയതെ ഇതാരായിരുന്നു ഫോണോ അതെയോ ഏതാ നോക്കുന്നേ പത്തായിരത്തിന് താഴെയോ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് റീൽമിടെയൊരു സി ത്രീയുണ്ട് ഇതിപ്പോൾ ബാറ്ററി വരുന്നത് ആറായിരം എം എച്ച് ബാറ്റെറിയാണ് റാമ് ഫോർ ജി ബി റാമ് വൺ ട്വൻറ്റി ജി ബി ഇൻടെർണൽ സ്റ്റോറേജ് പിന്നെ ഫോണ് ഫാസ്റ്റ് ചാർജിങ്ങാണ് ഇല്ല വയർലെസ്സ് വരുന്നില്ല പത്തായിരത്തിൻ്റെ താഴെയുള്ള ഫോണാണല്ലോ അപ്പോൾ ആ ഉണ്ട് ഉണ്ട് വാറൻറ്റി വൺ ഇയർ വാറൻറ്റിയുണ്ട് വൺ ഇയർ വാറൻറ്റിയുണ്ട് എന്താ വെച്ചാൽ നമ്മൾക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നുണ്ട് സ്ക്രീൻ ഗാർഡ് ഇയർ ഫോൺ എല്ലാം ഫ്രീയായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഒരു ഫിഫ്റ്റി റ്റു സിക്സ്റ്റീനാണ് വരുന്നത് ഡിസ്പ്ലേ സിക്സ്റ്റീൻ ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി എക്സ്ൻ്റെ എൽ എൽ സി ഡി എൽ സി ഡി വൺ ട്വൻറ്റി എക്സിൻ്റെ ഒരു എച്ച് ഡി ഡിസ്പ്ലേയാണ് വരുന്നത് ആ അതുണ്ട് ഇയർ ഫോണും ഒരു സ്ക്രീൻ ഗാർഡുമുണ്ട് കൂടെ